നെയ്ത്തും തുന്നലുകളും ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് അതുവഴിയാണ് ഞാനെന്റെ ജീവിതത്തിനു വേണ്ട പണം കണ്ടെത്തുന്നത് അപ്പം ഞാന് വളരെ കുഞ്ഞിലേ തൊട്ടേ തയ്ക്കുന്ന ഒരാളാണ് അപ്പം എന്റെ അമ്മ ഒരു തയ്യൽക്കാരി ആയിരുന്നു എന്റെ അമ്മയിൽ നിന്നാണ് ഞാൻ തയ്യൽ പഠിച്ചത് ഇപ്പം അമ്മയ്ക്ക് ശേഷം എനിക്ക് ഒരു വരുമാന മാർഗ്ഗം തന്നെ ആയിരുന്നു എനിക്ക് തുന്നൽ എന്നുള്ള ഞാനൊരുപാട് കാര്യങ്ങൾ തയ്ക്കും ഉടുപ്പുകൾ തയ്ക്കും ചുരിദാറുകൾ തയ്ക്കും പിന്നെ പാവാട തയ്ക്കും പാന്റും ഷര്ട്ടും എന്നെക്കൊണ്ട് സാധികുന്ന എല്ലാം ഞാന് തയ്ക്കാറുണ്ട് ഇപ്പം നിരന്തരമായിട്ട് തയ്ക്കുന്നതിലൂടെ നല്ല ശാരീരിക അസ്വസ്ഥതകൾ ഒരുപാടുണ്ടാവുമെങ്കിലും എനിക്ക് അത് തയ്ച്ചു തീരുമ്പോഴത്തേക്കും അത് ഇടുന്ന ആൾക്കാർക്കുണ്ടാകുന്ന സന്തോഷം കാണുമ്പോൾ ഞാനെന്റെ വേദനകളൊക്കെ മറക്കും എനിക്ക് കൂടുതലും നടുവേദനയും കാലുവേദനയും ഒക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് കാരണം പണ്ടത്തെ തയ്യല് മെഷീന് കാലു വെച്ച് ചവിട്ടി ചവിട്ടിയാണ് തയ്ക്കേണ്ടത് പക്ഷേ ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകൾ വന്നപ്പോഴത്തേക്കും ഇലക്ട്രിക് തയ്യല് മെഷീൻസ് വന്നു അപ്പം അതുവഴി എനിക്ക് എന്റെ ആയാസം കുറഞ്ഞു എനിക്ക് കുറച്ച് കഷ്ടപ്പെട്ടാൽ മതി കാലുവേദനയ്ക്ക് ഒക്കെയൊരു ഉപാധിയായിട്ടുണ്ട് കുറച്ചുകൂടെ വേഗത്തിൽ എന്റെ തുന്നല് പണികൾ തീര്ക്കാനായിട്ട് എനിക്ക് സാധിച്ചു പിന്നെയെനിക്ക് സൂചിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കൈക്കൊക്കെ വേദനയുണ്ടായിട്ടുണ്ട് എന്റെ കണ്ണിന് കാഴ്ചശക്തിയെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും എനിക്ക് തുന്നലിനോടുള്ള ആ ഒരു അഗാധമായ സ്നേഹത്തിന് ഇതൊന്നും ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം ഒരുപാട് ഇനിയും തയ്ക്കണം എന്നതാണ് എനിക്ക് ആഗ്രഹം അപ്പം തുന്നൽ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കുമെങ്കിലും തുന്നാനും അത് എല്ലാവർക്കും കൊടുക്കാനും എനിക്കിപ്പോഴും ഒരുപാട് ഇഷ്ടമാണ്